ആ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ അയ്യോ അത് ഞാനിങ്ങനെ കൃഷിക്ക് ആവശ്യത്തിനായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലവാണല്ലോ ആ അത് കൃഷി സ് സമയത്തല്ലേ നമ്മള് കൃഷി ചെയ്യാറുള്ളൂ അതിപ്പം നമ്മള് കൃഷി ചെയ്യണ്ട സമയമല്ല അതുകൊണ്ടാണത് അങ്ങനെ ഇട്ടിരിക്കുന്നത് ആ അതിൻ്റെ ഞാനത് എന്നാ ഇപ്പം അത് എന്ന് പറയുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവാണത് വരുന്നത് നമ്മളതിലൊര് സെൻറ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ വെച്ചാണ് കൂടുതലിപ്പം മെയിൻ റോഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സൗകര്യം കൂടുതലും വേണം അത്ര റേറ്റാണേ ഇടുന്നത് പിന്നെ അത് ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ നമുക്ക് വേണേൽ കൊടുക്കാം ഇല്ലായെങ്കിൽ നമുക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാമെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചെയ്യാം

അത് വേറൊരു വ്യക്തിയുടേതാണ് മൊത്തത്തിലത് പത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലം കാണും അത് അവരോട് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചാലേ പറയാൻ പറ്റത്തുള്ളൂ അതെ അതെ നാട്ടിലൊള്ളവരാണ് അത് നമുക്ക് പ്ലോട്ട് നല്ല സ്ഥലവല്ലേ എന്ന് വെച്ചാൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട് ജ വെള്ളത്തിന് വെള്ളവുണ്ട് റോഡിന് റോഡുണ്ട് എത്ര രൂപക്കാണ് നാലിനോ ആ അതിപ്പം നാലിന് ഞങ്ങൾക്ക് നഷ്ടമാകും നാലരക്ക് നമ്മളേറ്റവും കുറഞ്ഞാണ് അഞ്ച് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം തന്നെ അത് കൃഷി സ്ഥലവല്ലേ അതിപ്പം കൃഷിക്കാർക്കതൊര് ബുദ്ധി നമ്മളിപ്പം കൃഷി ചെയ്യുന്നത് നമ്മള് സ്വന്തവായിട്ടല്ലേ ചെയ്യുന്ന ആൾക്കാരെ നിർത്തിയത് അപ്പോൾ അവരെ വരുമാനോടെ നോക്കണ്ടേ നമ്മളിപ്പം എടുത്തടിച്ച് നിങ്ങക്കൊരാക്കത് വിറ്റ് കഴിയുമ്പത്തേക്കും അവരുടെ ജോലിയുടെ കാര്യത്തിലും പോവും പിന്നെ ഞങ്ങൾക്ക് വരുമാനം കുറയും അങ്ങനൊക്കെ ഓരോ പ്രശ്നങ്ങളൊണ്ടതില് അതുകൊണ്ട് നാല് ലക്ഷം രൂപകെകെ നമുക്കൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ആ എന്നാൽ ഓക്കെ ശരി ആ ഓക്കെ ഓക്കെ നാലരക്ക് തന്നെ ആ ശരി ഓക്കെ എഴുതിക്കാം താങ്ക്യൂ ശരി